ആ ഹലോ

ആ ഞങ്ങളത് ഈയിടെ എല്ലാം മെയിൻറ്റെയിൻ ചെയ്തതാണല്ലോ

ആ അത് ഞാനേ ഞങ്ങളുടെ ഇലെക്ട്രിഷ്യനെയും പ്ലംബറെയും ഒക്കെ ഒന്ന് വിളിച്ച് നോക്കട്ട് കേട്ടോ നോക്കിയിട്ട് ഞങ്ങൾ ഈയിടെ എല്ലാം ഒന്ന് എല്ലാ ഒന്ന് പെയിൻറ്റ് അടിച്ചും എല്ലാം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തതായിരുന്നു സംഭവം അത് ആ അ ആ ആയിരിക്കും അത് ആ അവർ പോകുന്നതിന് മുമ്പാണ് ഞങ്ങൾ ഇതെല്ലാം റെഡി ആക്കിയത് മ് മ് ഇല്ല നോക്കിയില്ല നോക്കിയില്ല സാധാരണ രീതിയിൽ നോക്കേണ്ടതാണ് ഒരു പക്ഷെ ഞങ്ങൾക്കത് നോക്കാനായിട്ട് പറ്റിയില്ല ആ കൊച്ചു പിള്ള കൊച്ചു പിള്ളേർ ഉണ്ടായിരുന്നു അതാ ആ അതല്ല അതെല്ലാം വൃത്തിയാക്കി തരാം കേട്ടോ ഓ ഒ അത് അതിൻ്റെയൊക്കെ നമ്പറ് എൻ്റെയിലുണ്ട് അത് ഞാൻ പത്രക്കാരനെയും വിളിച്ച് ഇടപാട് ചെയ്യാം പാൽക്കാരനെയും ഇടപാട് ചെയ്യാം അത് വീട്ടിൽ കൊണ്ട് തന്നോളുവേ ആ മാസത്തിൽ കൊടുത്താൽമതി മാസത്തിൽ കൊടുത്താമതി വീടിൻ്റെ വാടക മാസം മാസം ബാങ്കിൽ അടയ്ക്കണം ഓൺലൈൻ പേയ്മെൻറ്റോ അതെങ്ങനെ ആണെന്ന് വച്ചാൽ ബാങ്കിൽ നമുക്ക് പൈസ ചെന്നിരിക്കണം

ആ അത് അത് ഞങ്ങളുടെ പ്ലംബറെയും ഇലക്ട്രിഷ്യനേയും ഒക്കെ വിളിച്ച് ഉടനെ റെഡിയാക്കി തരാം കേട്ടോ ആ പെയിൻറ്റ് പെയിൻറ്റ് അടിച്ച് തരാം അല്ലെങ്കിൽ ആ നിങ്ങൾ ഉപയോഗിച്ചോ ഫർണിച്ചറ് ഇല്ല കുഴപ്പം ഒന്നും ഇല്ല ആ എല്ലാംകൂടെ ഇടാനുള്ള സ്ഥലം തികയുമായിരിക്കും ആ ആ അതും പറയാം അതും പറയാം ആ തരാം തരാം എല്ലാം തരാം എല്ലാം തന്ന് അ അതൊക്കെ റെഡിയാക്കിയേക്കാം കേട്ടോ മ് ശരി